ആളുകൾ പൊതുവെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വാർത്തകളും പരിപാടികളും കാണാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിനായിട്ടവർ ടെലിവിഷൻ ഫോൺ ലാപ്ടോപ് പോലുള്ളവയാണ് ഉപയോഗിക്കുന്നത് പണ്ടത്തെ വിനോദ വ്യവസായങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ ഒരുപാട് തടാകവും പൂക്കോട് തടാകം അങ്ങ് റിസോർട്ട് ബാണാസുരസാഗർ ഇതേപോലുള്ള ഒരുപാട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആളുകൾ പലരും അതിലേയ്ക്ക് യാത്ര തിരിയാതെയായി എല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ടിരുന്നു പലർക്കും അവരുടെ ജീവിതത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരു സ്ഥാനമില്ലാതെ കുറഞ്ഞു വരാൻ തുടങ്ങി ആളുകൾ പൊതുവെ കാണാൻ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ വ്യത്യസ്തമായ പൊതുവിൽ പൊതുവെ കാണുന്നതിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാനാണ് പൊതുവേ ജനങ്ങൾക്ക് താല്പര്യം ഡിഫ്ഫറെന്റ് ആയിട്ടുള്ള സമയ വർഷങ്ങളുടെ അത് ഇങ്ങനെ മാറിയിരിക്കണതെന്നു വച്ച് കഴിഞ്ഞാൽ പൊതുവേ രണ്ടുവർഷം മുൻപുള്ള കാലാവസ്ഥ പെട്ടെന്നുള്ള മാറ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു പല വിനോദ വ്യവസായ കേന്ദ്രങ്ങൾക്കും മാറ്റം വന്നിരുന്നു പലതും നശിച്ചു പോയിരുന്നു